ഹലോ ആക്റ്റീവ് ജിം അല്ലേ ആ എന്റെ പേര് നൈഖിൽ എന്നായിരുന്നു ഞാൻ അവിടുത്തെ അവിടെ ഒരു പുതിയ അഡ്മിഷൻ എടുക്കാൻ വേണ്ട കാര്യത്തിന് വിളിക്കുന്നതായിരുന്നു അപ്പോൾ നിങ്ങളുടെ പ്രൊസ അഡ്മിഷൻ പ്രൊസസും നിങ്ങളുടെ റിക്വയർമെൻറ്സ് എന്തൊക്കെ ആണെന്നറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചതായിരുന്നു ആ ഏജ് തേർട്ടി സെവൻ

ഓക്കെ ഓക്കെ നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയ്നേഴ്സ് അങ്ങനെ ഒക്കെ ഉണ്ടോ അതോ നിങ്ങളുടെ ജിം ടൈമിങ്ങ് ഒക്കെ ജിം ടൈമിങ്ങ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് ബ്രോ

ആ എനിക്ക് ജോലി ഉണ്ടായിരുന്നു ജോലി കഴിഞ്ഞ് വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈം ആണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതായിരുന്നു ഓക്കെ ഇപ്പം എനിക്ക് ഫിറ്റ്നെ നെക്സ്റ്റ് ഡേ തൊട്ട് തുടങ്ങാൻ വേണ്ടിയാണ് എനിക്ക് ഫിസിക്കലി ഒന്ന് ഫിറ്റ് ആവണം പിന്നെ ഇത്തിരി ബൾക്കിങ്ങ് വേണം സ്കിന്നി ആണ് ഞാൻ ഓ ഓക്കെ ഇത് പ്രോട്ടീൻ കഴിക്കുന്നതും ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നതൊക്കെ ബോഡിക്ക് നല്ലതാണോ അതോ നമുക്ക് മോശം ആണ് കൊള്ളത്തില്ല എന്നൊക്കെ അല്ല നമ്മൾ ഇങ്ങനെ ന്യൂസ് ഒക്കെ കാണാറില്ലേ നമ്മൾ അതനുസരിച്ചിട്ട് ഓക്കെ ഇത് യൂണിസെക്സ് ജിം ആണോ മെൻസിന് മാത്രമായിട്ടുള്ളതാണോ ഓ ഓക്കെ ആ ആ ആ ആ ഓക്കെ ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെ ആയിട്ടാണ് ഇത്

ഓക്കെ ഇത് നമ്മൾ ആ വെ വരുന്ന അന്ന് അഡ്മിഷൻ എടുത്താൽ മതിയോ അതോ ഇന്ന് നേരത്തെ വന്ന് അഡ്മിഷൻ എടുത്തിട്ട് പിന്നെ വന്നാൽ മതിയോ ഇത് നമ്മുടെ ഈ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് ജിമ്മിൽ വരുമ്പോഴത്തേക്ക് ഉള്ളത് ഗിയർ ഗിയേഴ്സ് ആയിട്ട്

ഓക്കെ ഇപ്പം റെഗുലർ ആയിട്ട് ഞാനിപ്പം ജിമ്മിൽ വരുവാണെങ്കിൽ എത്ര മന്ത് കൊണ്ടെനിക്ക് ബൾക്കിങ്ങ് ക്ക് പ്രൊസസ്സ് ആവുമായിരിക്കും ഹെൽത്ത് ഫിറ്റ് ആവും ഇല്ല ആ ഒന്ന് പോയിട്ടുണ്ട് ഒരു ആക്സിഡൻറ് പറ്റി നിർത്തിയത് അത് ഓക്കെ ഞാൻ അടുത്ത ദിവസം തന്നെ വരാം